ഹലോ ആ ഹലോ

ഓക്കെ ആ ശിവാനി മാം അല്ലേ ഓ ഓക്കെ മാം എസ് ബി ഐയിൽ ഒരു എഡ്യൂക്കേഷൻ ലോണിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നോ ഓക്കെ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത് ഓക്കെ മാം എത്ര രൂപയാണ് മാമിന് ലോൺ വേണ്ടത് എഡ്യൂക്കേഷൻ ലോണ് ഓക്കെ ആ ഏത് കോഴ്സ് പഠിക്കാൻ ആയിട്ടാണ് ഓക്കെ എത്ര കോഴ്സ് ഡ്യൂറേഷൻ എത്ര കൊല്ലം ആണ് ഏത് കോളേജാണ് ഓ ഓക്കെ മാംമിന് ഈ ലോൺ എടുക്കാൻ ആയിട്ട് കൊളാറ്റൽ വയ്ക്കാൻ ആയിട്ട് എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ഹൗസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ ആ ആ വീടിന് ഇപ്പം നിലവിൽ എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊ അങ്ങനെ എന്തെങ്കിലും ഓക്കെ ആ വീട് ആരുടെ പേരിലാണ് ഉള്ളത് ഓക്കെ അത് എവിടെ ആയിട്ട് വരും ഈ വീട് ഈ വീട് ഏത് സ്ഥലത്ത് ആയിട്ടാണ് വരുന്നത് ഓക്കെ മാമിൻ്റെ അഡ്മിഷൻ ഡേറ്റ് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ടാവുന്നത്

ഓക്കെ ഓക്കെ ബാക്കി ഓക്കെ ആ ഇൻ്ററസ്റ്റ് വന്നിട്ട് മാം ഇത് മാമിൻ്റെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട് ത്രീ ഇയർ ആയത് കൊണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ തെർട്ടി പെർസെൻറ്റേജ് ആണ് ഈ മൂന്ന് വർഷം കഴിയുമ്പോൾ തൊട്ട് മാം അടച്ച് തുടങ്ങേണ്ടത് തെർട്ടി അതെ ജോലി കിട്ടിയതിന് ശേഷം അങ്ങനെ നമ്മൾക്ക് ജോലി ആ അത് നമ്മൾ ഒരു ഇത് ആയിട്ട് എടുക്കുന്നില്ല ഒരു മൂന്ന് വർഷം സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞാൽ തന്നെ ആ ടൈം തൊട്ട് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ലോണ് ക്ലോസ് ചെയ്ത് തുടങ്ങണം അതായത് ഇപ്പോൾ മാമിൻ്റെ കോളേജിൻ്റെ ആ ബ്രൗഷർ അതായത് സിലബസ് ഡ്യൂറേഷൻ ഫീ സ്ട്രക്ച്ചർ എല്ലാം നമ്മൾക്ക് സെൻ്റ് ചെയ്ത് തരണം അതിൽ നിന്ന് ഈ കോഴ്സ് എപ്പോൾ തുടങ്ങി അതിൽ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കോഴ്സ് കംപ്ലീഷൻ ഡേറ്റും നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ ആ ഒരു രീതി ആ ഒരു ടൈം പീരീഡിലേക്ക് ആയിരിക്കും ആ അത്രയും നാളത്തേക്ക് ഈ ലോണ് ഹോൾഡ് ചെയ്ത് വയ്ക്കുന്നത് എഡ്യൂക്കേഷൻ ലോണിൻ്റെ പീരീഡായിട്ട് അതിന് ശേഷം തൊട്ട് മാം അത് ആ പീരീഡ് കഴിയുമ്പോഴേക്കും മാം ലോൺ അടച്ച് തുടങ്ങേണ്ടിയിരിക്കും ആ ഉറപ്പായിട്ടും ഫസ്റ്റ് ഇ എം എ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഉറപ്പ് ആയിട്ടും ബാങ്കിൽ നിന്ന് കോള് വരുന്നതായിരിക്കും മാസം ഇപ്പോൾ അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു തെർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു ഏഴായിരത്തി അറുന്നൂറ്റി സംതിംഗ് വരും ഓക്കെ അപ്പോൾ മാം എസ് ബി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാൻ ആണോ തീരുമാനിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ലോണിന് ഇത് ഇപ്പോൾ വീട് അച്ഛൻ്റെ പേരിൽ ആയത് കൊണ്ട് ആദ്യം അച്ഛൻ അച്ഛനെ കൊണ്ട് വരണം പിന്നെ അച്ഛൻ്റെ ഗവൺമെൻറ്റ് പ്രൂഫ് അതായത് ഐ ഡി പ്രൂഫ് പിന്നെ വില ആധാരം മുന്നാധാരം ആ ഇത് രണ്ടും വേണം പിന്നെ കരം തീർത്ത രസീത് അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പാസ്ബുക്ക് എന്നിവ ആണ് വേണ്ടത് അതുപോലെത്തന്നെ ആ ആ ഓ ആ കോളേജിൻ്റെ അഡ്മിഷൻ കാർഡ് അത് മീൻസ് അഡ്മിഷൻ ലെറ്റർ ഓഫർ ലെറ്റർ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഫീ സ്ട്രക്ച്ചറ് പിന്നെ സിലബസ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന കോളേജിൻ്റെ അവിടത്തെ പ്രിൻസിപ്പാളിൻ്റെ നോമിനേഷൻ ഫോമും വേണം അതായത് താങ്കൾക്ക് ലോണ് കൊടുക്കുന്നതിന് കൺഫേം ലെറ്ററ് അത് കഴിഞ്ഞിട്ട് ആ അതെ പറഞ്ഞോളൂ മാം പറഞ്ഞോളൂ അതിന് മുന്നേ നമ്മൾക്ക് ഈ പ്രോപ്പർട്ടീൻ്റെ ആ പേപ്പേഴ്സും പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡോക്യൂമെൻറ്റ്സ് ഒന്ന് കണ്ടാൽ എത്ര നേരം കൊണ്ട് നമ്മൾക്ക് ഈ ലോൺ സാംഗ്ഷൻ ആവുമെന്ന് പറയാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ മാം എത്ര അടുത്ത ദിവസം തന്നെ ഇപ്പോൾ ബുധനാഴ്ച തന്നെ മാം ബാങ്കിൽ വന്ന് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്ത് തുടങ്ങാം എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആ ലോണ് റെഡി ആക്കാനായിട്ട് പറ്റും കാരണം എക്സിസ്റ്റിംഗ് ആയിട്ട് ഈ കൊളാപ്സിൽ വയ്ക്കാനുള്ള പ്രോപ്പർട്ടിക്ക് ലോൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ മാമിന് ബുധനാഴ്ച ബാങ്കിലേക്ക് വരാനായിട്ട് പറ്റുമോ ഓക്കെ മാം ആ മതി മതി എപ്പോഴാണോ സൗകര്യം ഉള്ളത് വന്നാൽ മതി ഈ നമ്പറിലേക്ക് തിരിച്ച് വിളിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ ഞാൻ തന്നെ ഇവിടെ ബാങ്കിൽ ഉണ്ടാവും പിന്നെ എന്തായാലും മാനേജറിൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞേക്കാം അപ്പോൾ എല്ലാ കാര്യവും ആ പറഞ്ഞ് നേരത്തെ തന്നെ എല്ലാം റെഡി ആക്കി വയ്ക്കാം ആ ഈ ഡോക്യൂമെൻറ്റ്സും ഇപ്പം ലോൺ ഒന്നും ഇല്ലല്ലോ പ്രോപ്പർട്ടിക്ക് അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്യൂമെൻറ്റ്സ് എല്ലാം കൈയ്യിൽ വച്ചേക്കണം ഈ പറഞ്ഞ രീതിയിൽ അച്ഛൻ്റെ ആയാലും മാമിൻ്റെ ആ ബാങ്ക് എവിടെ ആണോ ബാങ്ക് ഉള്ളത് അവിടെ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം എടുത്ത് വയ്ക്കുക്ക എല്ലാ ഐ ഡി പ്രൂഫും കൈയ്യിൽ ഉണ്ടായിരിക്കണം ആ ഓക്കെ താങ്ക് യു മാം